ഹലോ ഇത് വളം വിൽക്കുന്ന കടയല്ലേ ആ ആ ഞാന് അവിടെ അടുത്ത് താമസിക്കുന്ന ഒരാളാണേ എൻ്റെ പേര് മഞ്ജു എന്നാണ് പിന്നെ അവിടെ കുറച്ച് വളം വേണവായിരുന്നേ കുറച്ച് കൃഷി ഉണ്ടായിരുന്നു അപ്പം അതിന് ഇച്ചിരി പയറും കോവക്കായും അങ്ങനെയൊക്കെ ഉള്ളതാ പിന്നെ പച്ചക്കറി കൃഷി ആ ആ അല്ലാതെ തെങ്ങൊക്കെയുണ്ട് ആ തെങ്ങൊന്നും അങ്ങോട്ട് പിന്നെ കുഴിച്ച് വെച്ച പോലെതന്നെ ഇരിക്കുവാ അപ്പോൾ ഇച്ചിരി വളവൊക്കെ അത്യാവശ്യവായിട്ട് ഇട്ടാലെ അത് ഫലപുഷ്ടി ആകത്തുള്ളൂ അപ്പോൾ അതിന് പറ്റിയ വളമേതാണ് അവിടെ ഉള്ളത് ആ ആ ഒരു ഒരു പത്തിരുപത്തഞ്ച് ദിവസവായി കുഴിച്ചിട്ടിട്ട് ആ ആ മഴ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ ഇ ജോ ഇല്ല വളവൊന്നും വളവൊന്നും ഇട്ടില്ലാരുന്നു പിന്നെ എന്ത് ഏത് വളവായിരിക്കും നല്ലതുള്ളത് ആ ആ ആ ഹാ ഹാ ആ ഹാ ആ അവിടെ വന്നാൽ എപ്പഴും കിട്ടുവോ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ആ ഹാ ഹാ ആ ഹാ ആ ആ

ആ ഹാ മ് മ് മ് മ് മ്

മ് മ് ആ ആ ഹാ ആ ആ ഹാ അത് എങ്ങനെയാണ് ഇടുന്നത് ആഴ്ചയിൽ ഒന്നാണോ അതോ മാസത്തിൽ ഒന്ന് ആ ആ ആ ആ ആ ആ ആ ഹാ ആ ആ പറമ്പിലാണ് അപ്പം മിറ്റത്ത് തന്നെ ഒരു പറമ്പിലാണ് വീടിനോട് ചേർന്ന ഒരു സ്ഥലത്താ മ് മ് ആ മഴ മഴ കിട്ടുന്ന സ്ഥലമാണ്

അതെ തടവൊക്കെ വെച്ചേക്കുന്നതാണ് തടം ആ വളർച്ച വലിയ മേന്മ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് വളം മേടിക്കാമെന്ന് വെച്ചത് ആ ആ അതുകൊണ്ടാ പിന്നെ എന്നാൽ ഞാൻ സമയം കിട്ടുമ്പം അവിടെ വരാവേ ആ ഓക്കെ ആ ആ ഉം ആ ഹാ ശരി എന്നാൽ ആ ആ